ഇന്ത്യയിലുള്ള എല്ലാ ആൾക്കാർക്കുന്ന് പറഞ്ഞാൽ ചായ ഭയങ്കര ഇഷ്ട്ടമുള്ളൊരു പാനീയവാണ് കാരണമെന്താണ് വെച്ച് കഴിഞ്ഞാൽ രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ നമ്മളൊരു ചായ അത് പതിവാണ് അപ്പം പാലൊഴിച്ച് ഒരു ചായാന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ അത് കുടിച്ച് കഴിഞ്ഞാൽ നല്ലൊരു ഉൻമേഷവും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നല്ലതാണ് പിന്നെന്ന് പറഞ്ഞാൽ കാപ്പിയാണ് അതായത് കോഫി അപ്പോൾ അതും നല്ല രീതിയിലുള്ള ഒരു ഉന്മേഷ പാനീയമാണ് നമ്മൾ രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ കാപ്പിയും അല്ലെങ്കിൽ ചായ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് കുടിക്കാറ് ഒരു ചായയുണ്ടാക്കുന്നത് എങ്ങനെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ളൊരു തേയില അതായത് നല്ല ഹൈ ക്വാളിറ്റി തേയിലയാണെങ്കിൽ കുറച്ചുംകൂടെ നല്ലൊരു ചായ കിട്ടാനുള്ള ചായ കുടിക്കാൻ നമുക്ക് സാധിക്കും ചായാന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ അത് ഇട്ട് കഴിഞ്ഞാൽ പാലൊഴിക്കുക ആദ്യം നമ്മൾ ചായപ്പൊടി ഇട്ടിട്ട് തിളപ്പിക്കുക ആദ്യം വെള്ളമൊന്ന് തിളച്ചതിന് തിളച്ച് വന്നതിന് ശേഷം നമ്മൾ ചായപ്പൊടി ഇടുക ചായപ്പൊടി ഇട്ട് കഴിഞ്ഞാൽ അതും കൂടെ കൂടുതൽ തിളച്ച് കഴിയുമ്പോഴത്തേക്കും പാലൊഴിക്കുക പാലൊഴിച്ച് കഴിയുമ്പോഴത്തേക്കും ഒരു മീഡിയം ലെവല്ല് ഒരു ചെറിയൊരു കടുപ്പത്തിൽ നല്ലൊരു ചായ കുടിച്ച് കഴിഞ്ഞാൽ തന്നെ നമുക്ക് നല്ലൊരു ഉൻമേഷം കാര്യങ്ങളൊക്കെ കിട്ടും അതിൻ്റെ കൂടെ നമുക്ക് ഇപ്പമെന്തെങ്കിലും പുട്ട് അങ്ങനെ എന്തേലൊക്കെ കഴിക്കുവാണേൽ നല്ല രീതിയിലുള്ള ഒരു അന്നത്തൊരു ബ്രേക്ക്ഫാസ്റ്റും എല്ലാ കാര്യങ്ങളും ഒരുമിച്ച് ആക്കാൻ വേണ്ടി പറ്റും ഇങ്ങനെയാണ് ചായ ഉണ്ടാക്കാറ്